ആ സാർ എൻ്റെ പേര് സീന എന്നാണ് ഞാൻ ഒരു ഗവൺമെൻറ്റ് ഉദ്യോഗസ്ഥ ആണ് റി റിട്ടയേർഡ് ആവാറായി അപ്പം എനിക്ക് കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ട് അപ്പം അത് ഞാൻ അത് എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യണം ഡെപ്പോസിറ്റ് ചെയ്താൽ അത് എങ്ങനെ എനിക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഒക്കെ ഒന്ന് പറഞ്ഞ് തരാമോ സാർ ഒരു ആറ് ഏഴ് ലക്ഷം ഉണ്ടാവും ഞാൻ ഒരു എൽ ഡി ക്ലർക്ക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആ രണ്ട് മൂന്ന് കൊല്ലം ഉള്ളൂ ആ ആ ശരി

ഓ ഓക്കെ ഓക്കെ എസ് ബി ഐയിൽ ആണ് ആ ആ ഓക്കെ

ഓ ശരി ശരി ആ അതിനെ കുറിച്ച് ഒക്കെ ഒന്ന് പറഞ്ഞ് തന്നാൽ അതെ നമുക്ക് ഡീറ്റെയിൽസ് ആയി അറിയില്ലേ ആ ആ ആ ഓ ഓ ഓ ശരി ശരി ആ ഏ എൽ ഐ സി പോളിസി ഒന്നും ഇല്ല എടുത്തിട്ടില്ല ആ ഉണ്ടാവും ഉണ്ടാവും

ആ മൂന്ന് കൊല്ലം ഉണ്ട്

ആ അങ്ങനെ ഓക്കെ

ആ ഓക്കെ ആ ഓക്കെ സാർ

ആ ഓക്കെ സാർ ആ താങ്ക്യൂ താങ്ക്യൂ സാർ